അതെ ആരാണ് സംസാരിക്കുന്നത് ആണോ ടെംപറേച്ചർ എത്ര ഉണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പനിയുണ്ടോ

ബി പി ഒക്കെ നോക്കിയിട്ടുണ്ടോ ബിപിയോ ഷുഗറോ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ വേറെ പകർച്ച വ്യാധികളൊക്കെ എന്തെങ്കിലും നാട്ടുകൾ നാട്ടിലൊക്കെ ഉണ്ടോ അടുത്തെങ്കിലും ഇന്ന് ഇപ്പോൾ പാരസെറ്റാമോൾ കഴിച്ച് നോക്കി നോക്ക് എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഈ പകർച്ചവ്യാധിയൊക്കെ ഉള്ള സമയം ആയത് കൊണ്ട് തന്നെ നിങ്ങള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ

ഫുഡ് വോമിറ്റിംഗ് ഉണ്ടോ വയറിളക്കം അപ്പോൾ ഇപ്പോൾ വയറിളക്കമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക ഒ ആർ എസ് ഒക്കെ കലക്കി കുടിക്കുക ചെയ്യേണ്ടി വരും പിന്നെ ഇത് ഇങ്ങനെ ശർദിയും പണിയും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പകർച്ചവ്യാധി ആകാനാണ് സാധ്യത കൂടുതൽ കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും അ അൽമസ് ഹോസ്പിറ്റൽ

ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങള് ഞാൻ എഴുതി തരാം നിങ്ങളാദ്യം വന്ന് മീറ്റ് ചെയ്തിട്ട് ഞാന് എഴുതി തരാം അതുകഴിഞ്ഞിട്ട് നിങ്ങള് റിസൾട്ടും കൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ തലവേദനയുണ്ടോ ജലദോഷമൊക്കെ

അത്യാവശ്യം നല്ല റസ്റ്റൊക്കെ എടുക്കണം ആവി ഒക്കെ നന്നായിട്ട് കൊള്ളു കേട്ടോ ആവി പിടിക്കുക പിന്നെ നല്ല ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അ ടെസ്റ്റിൻ്റെ റിസാ ഇത് ഞാന് വാട്സ്അപ്പ് ചെയ്ത് തരാം എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം